അതെ എവിടുന്നാണ് മാം വിളിക്കുന്നത് ഉം ഉം ആ മാമിന്റെ പേരൊന്ന് പറയാമോ ആ ഓക്കേ മാം എന്നത്തേനാണ് വേണ്ടത് ഇരുപത്തെട്ടാം തീയതി ആ തയ്ച്ച് തരാം മാം ആ വെച്ചേക്കാം മാം കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് ലേറ്റസ്റ്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട് അത് മാമിന് ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം അപ്പം ആ ഡിസൈൻ ഒന്ന് നോക്കി ആ ഡിസൈൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഉണ്ട് നമുക്കിവിടെ അവൈലബിൾ ആണ് ഉം ലെഹങ്കയുടെ മെറ്റീരിയൽ എടുത്തായിരുന്നോ മാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഓക്കേ ആ ഓക്കേ നെക്ക് നെക്കിൽ വർക്ക് വയ്ക്കണോ ആ ഓക്കേ ആ ഓക്കേ ആ ഓക്കേ മാം ഇവിടെ വന്ന് മെറ്റീരിയൽ സെലക്റ്റ് ചെയ്യുവാണോ ആ ഓക്കേ ആ ഓക്കേ ഉം കെട്ട് വയ്ക്കണോ ആ കെട്ട് വയ്ക്കണോ കെട്ട് വയ്ക്കണത് കുറച്ചുകൂടെ ഭംഗി ആയിരിക്കും ക്രോപ്പ് ടോപ്പിന് പുറകിൽ കെട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഷോൾ വർക്ക് ചെയ്ത് തരാം അളവ് മെ ചുരിദാർ മെറ്റീരിയൽ മാമിനാണോ ചുരിദാർ വേണ്ടത് ആ ഓക്കേ അപ്പം അളവുമായിട്ട് വന്നാൽ മതി

വൈകുന്നേരം വന്നാൽ ഒരു ഏഴ് ആ ഇന്ന് വന്ന് ഇന്ന് വരാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ മെറ്റീരിയലും കൂടെ സെലക്റ്റ് ചെയ്യാം ആ ഇന്ന് തന്നെ പോന്നേരെ ആ ഇവിടെ നമുക്ക് ആളുണ്ട് തയ്ക്കാനായിട്ട് ആ തരാം ചുരിദാർ

ഒരു വർക്ക് കൂടുതൽ ആവും ആവുമെങ്കിൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരും ഇതെല്ലാം നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് കറക്റ്റ് എമൗണ്ട് എത്ര ആവുമെന്ന് പറയാം ആ ഓക്കേ ഓക്കെ